കിണറ്റിൽ നിന്ന് വെള്ളം എങ്ങനെ എടുക്കും എന്നു ചോദിക്കുവാണെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്നെന്നു പറയുന്നത് നമ്മൾ അതിനകത്ത് ഒരു കപ്പി ഘടിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം ഒരു അതിനകത്ത് ഒരു തൊട്ടി ഇട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം കോരി നമുക്ക് അങ്ങനെയാണ് നമുക്ക് വെള്ളം കോരാൻ പറ്റുന്നത് കിണറ്റിൽ നിന്ന് പിന്നെ പിന്നെയുള്ള ഒരു വഴി എന്നു പറയുന്നത് അടുത്തത് അടുത്ത വഴി എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് മോട്ടർ ഇലക്ട്രിക് മോട്ടർന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇലക്ട്രിക് മോട്ടർന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഒരു ഒരു മോട്ടറും പമ്പും ഓസും എല്ലാം കൂടി ചേർത്ത് നേരെ കിണറ്റിലേക്ക് നമ്മൾ അത് ഇറക്കി വെച്ചിട്ട് നേരെ നമ്മൾ മോട്ടറിനെ നമ്മൾ ഇലക്ട്രിക്ക് നമ്മൾ ഒരു ഒരു ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ അതിനെ ബന്ധിപ്പിക്കുക ബന്ധിപ്പിക്കുക എന്ന് നമുക്ക് അതീന്ന് തന്നെ മോട്ടർ എന്താ ചെയ്യുന്നത് അതിനകത്ത് ഉള്ള വെള്ളത്തിനെ എടുക്കുന്നു എന്നിട്ട് ഓസ് വഴി നമ്മൾ അതിനെ പുറത്തേക്ക് വിടുന്നു പുറത്തോട്ട് വിടുന്ന വഴി നമുക്ക് അതിനെ കളക്ട് ചെയാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രിക് മോട്ടർ കൂടുതലും ഉപയോഗിക്കുന്നത് വെള്ളം കോരുവാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ഒരു ബോർവെൽ സഹായത്തിനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് ബോർവെല്ലാണ് വീട്ടിൽ കണക്ഷനെങ്കിൽ അതിൽ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയുടെ അടീന്ന് വെള്ളം എടുക്കുന്നതും ഏറെ കുറെ ഈ മോട്ടർ കൊണ്ട് തന്നെയാണ്